പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പന്ത്രണ്ട് നാല് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ് പതിനഞ്ച് നാല് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുപ്പത് ഒന്പത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്